ഹലോ ഇത് ഒമ്പതാം ക്ലാസ് എയിലെ ടീച്ചർ ആയിരുന്നു വത്സമ്മ ടീച്ചർ മ് രണ്ട് കുട്ടികൾ തമ്മിൽ ചെറിയ വഴക്കുണ്ടാക്കി അത് പറയാനാണ് വിളിച്ചത് ടീച്ചർമാർ അറിഞ്ഞിരുന്നു ആ ഞങ്ങൾ അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ട് അവർ വരാമെന്ന് ആ അവർ തിങ്കളാഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്

ആ ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞപ്പം അവരും പറഞ്ഞു മാതാപിതാക്കളോട് പറയാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉം ആ അതൊക്കെ ചെയ്യുന്നുണ്ട് ഒന്ന് വഴക്ക് കൂടിയെന്നേ ഉള്ളൂ ആ അതെ അതെ അതെ ഉണ്ട് അല്ല കളിക്കാൻ പോവുന്ന സമയത്താണ് ഉം ആ അതിനൊന്നും കുഴ വലിയ കുഴപ്പമില്ലാതെ പോവുന്നുണ്ട്